നമ്മൾ നട്ടു വളർത്തിയ ചെടിയും മരവും പുഷ്പങ്ങളൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ ഒരു മനസ്സിനു ഒരു സമാധാനവും ഒരു സന്തോഷവുമൊക്കെയാണ് ഉണ്ടാവുക അതേപോലെ ആ ഗാർഡൻ ഒക്കെ നമ്മൾ ബോറഡിക്കുമ്പോഴൊക്കെ ഗാർഡനിലൊക്കെ പോയിരുന്നാൽ ഒരു സമാധാനം കിട്ടും അതേപോലെ പഠിക്കുമ്പോഴൊക്കെ പഠിക്കുമ്പോഴ് അതേപോലെ എന്തെങ്കിലും കോളൊക്കെ ചെയ്യുമ്പോൾ ഗാർഡനിലൊക്കെ പോയിരുന്നാൽ നമുക്കൊരു നല്ല ഇതാണ് കാറ്റും അടിക്കും അതേപോലെ അത്ര ചൂടൊന്നും കിട്ടില്ല നല്ല സുഖമായിരിക്കും അവിടെ പോയിരിക്കാൻ ഒരു മനഃസന്തോഷം ആയിരിക്കും നമുക്ക് അവിടെ പോയിരിക്കുന്നതുകൊണ്ട്